സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം ബോഡി വീട്ടിൽ വെക്കും അത് കഴിഞ്ഞ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ നമ്മുടെ ഇതാണെങ്കിൽ രണ്ട് ദിവസവും അല്ലെങ്കിൽ ഒരുദിവസം കഴിഞ്ഞിട്ട് അച്ഛൻ വീട്ടിൽ വന്ന് പ്രാർത്ഥനയോടെ ബോഡിയെടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി പള്ളിയിൽ വച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ശവക്കല്ലറയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് മണ്ണിട്ട് മൂടി സ്ലാബിട്ട് അടച്ചിടും ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഹിന്ദുക്കളുടെ ആണെങ്കിൽ അവർ ചാണകവും വിറകൊക്കെ വച്ച് കത്തിച്ച് കളയും ഇതാണ് സാധാരണ സംഭവിക്കുന്നത് കരച്ചിലൊക്കെ ആണെങ്കിലും കത്തിച്ച് കളയുന്നതാണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അല്ലെങ്കിൽ എല്ലൊക്കെ കിടക്കത്തില്ലേ എല്ലൊക്കെ വളരെ മോശമാണ് ഭയങ്കര അൺഹൈജീനിക്കാണ് ശവമൊക്കെ വരാൻ തുടങ്ങി കത്തിച്ച് കളഞ്ഞേക്കണം ചാണകവും വിറകൊക്കെ വച്ച് കത്തിച്ച് കളഞ്ഞേക്കണം